ഹലോ ഡ്രൈവറ് ചേട്ടാ ആ ഞാനേ നമുക്കൊരു കൂട്ടുകാരനെ കൂട്ടി നമുക്ക് ഒരു പാലരുവി വാട്ടർഫോൾസ് വരെയൊന്ന് പോവണമായിരുന്നു എത്ര രൂപ റേറ്റ് ആകും നമ്മുടെ ഈ പോവുമ്പോൾ ആ കിലോമീറ്റർ എനിക്കും അറിയാം ചേട്ടാ ഞാൻ ഗൂഗിളിൽ ഗൂഗിൾ സെർച്ച് ചെയ്തായിരുന്നു അതല്ല നമുക്ക് എത്ര രൂപയ്ക്ക് പോകാൻ പറ്റും ശോ നാൽപ്പത് രൂപ കിലോമീറ്ററ് റേറ്റ് പറയുകയാണ് എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നോവ വിളിച്ച് പോകാമല്ലോ ചേട്ടാ എനിക്കത് അത്രയും റേറ്റിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് മാക്സിമം അജസ്റ്റ് ചെയ്ത് റേറ്റ് പറയുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയുള്ള ഓട്ടങ്ങളും സാറിന് പിടിച്ച് തരാം എന്നാലും കുറച്ചുംകൂടെ ഒന്ന് കുറക്കാലോ വൈയ്റ്റിങ്ങ് ചാർജ് ഒന്നും വരത്തില്ല ചേട്ടാ നിങ്ങൾക്കും പാലരുവി കാണാലോ ആ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഒരുമിച്ച് പോയി പെട്ടെന്ന് വരാവുന്നതേ ഉള്ളു നമുക്ക് പാലരുവി ജസ്റ്റ് ഒന്നു കാണണം ഒരു ജസ്റ്റ് ഒരു രണ്ട് ഫോട്ടോ എടുക്കണം അത്രയൊക്കെ ഉള്ളൂ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ചേട്ടാ ഒരു മുപ്പത്തിരണ്ട് രൂപക്ക് വരാൻ പറ്റുമോ അതിൻ്റെ വേറെ എന്തെങ്കിലു പ്രയോജനം നമുക്ക് ചെയ്ത് തരാം വേറെ ഓട്ടങ്ങൾ പിടിച്ച് തരാം ഒരു ആളെയും കൂടെ ചേട്ടൻ്റെ ഇഷ്ടം ഉള്ള ആരെയെങ്കിലും നമുക്ക് ചേട്ടന് ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിച്ചോ ചേട്ടൻ്റെ വീട്ടിൽനിന്ന് ആരെങ്കിലും ഇപ്പം പിള്ളേർ ആരെങ്കിലും വേണം എന്ന് ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളിച്ചോ ഞങ്ങൾക്ക് കുഴപ്പം ഇല്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അതിനകത്ത് എന്നാലും ഒരു മുപ്പത്തിരണ്ട് രൂപക്ക് വന്നുകൂടെ ഞങ്ങൾക്ക് ചെലവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു നടക്കും ചേട്ടാ മനസ്സ് മനസ്സ് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളു നമുക്കൊരൂ പ്രദേശം കാണാനും പറ്റുമല്ലോ ചേട്ടനെ തന്നെ ഉൾക്കൊള്ളിച്ചതിൻ്റെ കാരണം ചേട്ടന് ആ പ്രദേശം ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചേട്ടനെ തന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ തന്നെ വിളിക്കുന്നത് ഞാൻ വേറൊരു ഓട്ടോം പിടിച്ച് തരാം ഓക്കേ അപ്പം ചേട്ടന് എത്ര രൂപക്ക് വരാൻ പറ്റും ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നൊരു നാലരയാവുമ്പഴത്തേന് അവിടെ വന്നേക്കാം എന്നിട്ട് ചേട്ടൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടാനായിട്ട് നമുക്കൊരുമിച്ച് പോകാം ഓക്കെ താങ്ക് യൂ